എനിക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് കേദാർനാഥ് കാശി കാശി പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അതേപോലെതന്നെ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് മണാലി മണാലി പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ട് കേട്ടോ അവിടത്തെ പശ്ചാത്തലം ഒക്കെ കാണാനും ആ മഞ്ഞിൽ ഒന്നു നടക്കണം അറിയില്ല നടക്കാൻ പറ്റുമോ ഇല്ലയോ എന്നെനിക്കറിയില്ല ആഗ്രഹിക്കാലോ നമുക്ക് എവിടെയും അവസരം കിട്ടിയാൽ പോകാൻ പറ്റുമെങ്കിൽ പോകാമല്ലോ അതേപോലെ ബദ്രിനാഥിൽ ആറുമാസം പൂട്ടിയിട്ട് ആറുമാസം തുറന്നു പ്രവർത്തിക്കുന്ന മഞ്ഞിനാൽ മൂടപ്പെട്ട മഹാവിഷ്ണുവിനെ മഹാവിഷ്ണുവിൻ്റെ ചരണം ആ സ്പർശം ഒത്തിരി കഥകൾ കേട്ടിട്ടുണ്ട് ഒത്തിരി പുരാണങ്ങളിലുണ്ട് ബദ്രിനാഥിനെക്കുറിച്ച് സിനിമയുണ്ട് അപ്പം എനിക്ക് ബദ്രിനാഥിൽ പോകണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് ബദ്രിനാഥിൻ്റെ പ്രത്യേകതയാണ് അവിടത്തെ പൂജാരി കേരളീയനായത് നമ്മുടെ കേരള കേരളത്തിൽ നിന്നുള്ള ആളാണ് അവിടത്തെ പൂജാരി അവിടത്തെ ആചാരങ്ങൾക്കൊക്കെ പ്രത്യേകതയുണ്ട് അപ്പോൾ എനിക്ക് അവിടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അതേപോലെതന്നെ കാശി കാശിയിൽ മനുഷ്യന് കുറേ അഹങ്കാരവും അഹന്തയും കുറേ ആ പൊങ്ങച്ചവും ദുഷിച്ച സ്വഭാവം ഒക്കെ വച്ച് നടന്ന് മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഏതൊരു മനുഷ്യനും ഈവെൻ ഞാൻ പോലും അങ്ങനെയായിരിക്കും പക്ഷേ മരിച്ച് കഴിഞ്ഞപ്പം മനുഷ്യൻ വെറും എന്താണ് ശരീരം മാത്രമായിട്ട് അതായത് ശവശരീരങ്ങൾ മനുഷ്യൻ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ കാശിയിൽ പോകണമെന്ന് ഒത്തിരി കഥകളിലുണ്ട് കാശിയെക്കുറിച്ച് കാശി ഒരു പുണ്യ സ്ഥലമാണ് മഹാദേവൻ്റെ പുണ്യസ്ഥലമാണ് കാശി രാമേശ്വരം അവിടെയൊക്കെ പോകാനാണ് എനിക്കിഷ്ടം നടക്കുമോ എന്നറിയില്ല ആഗ്രഹങ്ങൾ കുറേ ഉണ്ടല്ലോ ആ ആ ഒരു ഇതില് ഇതൊക്കെ എൻ്റെ ആഗ്രഹത്തിൽപ്പെടുന്നതാണ്